ഞാനൊരു ഹെയർ ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരത് ഹോം മെയ്ഡ് ആയിട്ടുതന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് അവരിന്റെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെമ്പരത്തിയും അതുപോലെ തുളസിയും കറിവേപ്പിലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വച്ചിട്ട് നാച്ചുറലായി തന്നെ അവര് അവരിന്റെ വീട്ടിൽ തന്നെ കാച്ചി എടുക്കുന്ന ഒരു ഹെയർ ഓയിൽ ആയിരുന്നു അത് വാങ്ങി ഉപയോഗിച്ച് കുറച്ച് മാസം ഉപയോഗിച്ചപ്പോഴും മുടിക്ക് നല്ല മാറ്റമുണ്ട് മുടി ഉള്ളു കൂടാനും മുടിയുടെ ഉള്ള് കൂടൂകയും ചെയ്തു പിന്നെ മുടിക്ക് നീളം വച്ചു പിന്നെ മുടി കറ് കറ് എന്നായി നല്ല കറുപ്പ് നിറം വെച്ചു മുടിക്ക് അത് ഉപയോഗിച്ചതിനു ശേഷം മുടിയിലെ താരനൊക്കെ ഇല്ലാണ്ടായി അതുപോലെത്തന്നെ പേനിൻ്റെ പ്രശ്നം ഈരിൻ്റെ പ്രശ്നമൊക്കെ കമ്പ്ലീറ്റായിട്ട് പോയി നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ് ഹെയർ ഓയിൽ അതുപോലെത്തന്നെ നമ്മുടെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് മാസത്തിൽ മാസം മാസത്തിൽ ഉപയോഗിക്കുകയാണ് നല്ല മാസത്തില് ആഴ്ചയില് തലയില് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം കാണാൻ വേണ്ടി സാധിക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്